ഹലോ ആഹ് അതെ ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാക്കിത്തരും പിന്നെ അതുകൂടാതെ പിന്നെ സദ്യ ഉണ്ട് ട്രഡീഷണൽ ആയിട്ട് ആഹ് പന്ത്രണ്ട് കറികൾ ഉണ്ടാവും രണ്ട് പായസം ആഹ് ഇവിടെ മാനന്തവാടി സിറ്റിയിൽത്തന്നെ ആഹ് ആഹ് വാങ്ങിക്കും

ആഹ് അതെ അതെ ആഹ് ഇവിടെ എല്ലാം പ്രൊവൈഡ് ഏഹ് ആഹ് അതൊക്കെ ഉണ്ടാവും ആഹ് മന്തി ഉണ്ട് മന്തി ഉണ്ട് ബിരിയാണി ഐറ്റംസ് ഷവർമ അങ്ങനത്തെ

ആഹ് ആഹ് ആഹ് ആഹ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിത്തരും പിന്നെ അവിടെയുള്ള കറി ഒക്കെ ഉണ്ടാവും ആഹ് ആ അത് ഉണ്ടാവും മറ്റേ ഇത് മാനന്തവാടി ടൗണിൽ തന്നെ ആഹ് ഉണ്ടാവും ഇവിടെ തന്നെ സ്റ്റേയും ഉണ്ട് നമ്മളുടെ തന്നെ ഹോട്ടൽ ഉണ്ട് ഒരു ഇരുന്നൂറ്

ഒരാൾക്ക് ഒരാൾക്ക് ഹ്മ് ആഹ് ആഹ് ആ അത് തരും

റൂമിന് ഒരു നല്ല എന്താ പറയുക കുറച്ച് വൃത്തിയും മീൻസ് നല്ല സൗകര്യം ഒക്കെ ഉള്ള വേണമെങ്കിൽ കുറച്ച് റേറ്റ് കൂടും അല്ലാണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ റേറ്റ് കുറയും

രാവിലെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും വന്നു കഴിച്ചാൽ മതി നിങ്ങൾ താഴോട്ട് വന്നിട്ട് ആഹ് അതെ ആഹ് അതെ അതെ ഓഹ് അതൊക്കെ ഉണ്ട് ആയിക്കോട്ടെ സർ ഒന്ന് വിളിച്ചാൽ മതി